എൻ്റെ വിദ്യാഭ്യാസ കാലങ്ങളിൽ മികച്ച വിദ്യാഭ്യ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് കൃത്യമായ വെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അത് നേടിയെടുക്കുന്നതിനായിട്ട് അധ്യാപകരുടെ ഭാഗത്തുനിന്നും ശരിയായ സപ്പോർട്ടും മാനസികമായിട്ടുള്ള ഐക്യവും ഒന്നും ലഭിക്കാതെ പോയതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നു ഇപ്പോഴുള്ള എൻ്റെ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ ആയതിനാൽ ഒരു മികച്ച വിദ്യാലയത്തെ സംരക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ ഒരു വിദ്യാലയം മേച്ചതാക്കാനും ഒരു നല്ല അധ്യാപകൻ ആവാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു ആയതിനാൽ ഒരു അധ്യാപനം എന്നത് ഒരു തൊഴിലല്ല എന്നും അതിനു വേണ്ടി സമർപ്പണബോധത്തോടു കൂടി പ്രവർത്തിക്കാനും അത് നല്ല രീതിയിൽ മുന്നോട്ടു കൊണ്ടുപോകാനും എനിക്ക് കഴിയുമെന്ന ദൃഢ നിശ്ചയബോധവുണ്ട്